ചേട്ടാ എത്ര രൂപയായി അറുന്നൂറു രൂപയോ അയ്യോ ചേട്ടാ അറുന്നൂറു രൂപ എൻ്റെ കയ്യിൽ ഇല്ല ഇപ്പോൾ മുന്നൂറു രൂപയേ ഉള്ളു കയ്യില് ഫോണിലാണേ ജി പേയോ പേ റ്റിയോ ഒന്നും വർക് വർക് വർക്കാവുന്നില്ല അതുകൊണ്ട് ബാക്കി പൈസ ഇന്നിപ്പോള് മുന്നൂറു രൂപ പിടിക്ക് ബാക്കി നാളെ നാളെത്തരാം നാളെ ഞങ്ങള്ക്ക് രണ്ടുമൂന്ന് ദിവസം യാത്ര ചെയ്തു ടാക്സി പിടിച്ചോണ്ടു പോവേണ്ടതുണ്ട് രണ്ടു മൂന്ന് സ്ഥലത്തു പോകണം അതുകൊണ്ട് ഇന്നത്തെ പൈസ നാളെ നാളെത്തരാം മതിയോ സാറേ ഞങ്ങള്ക്ക് കുറച്ചു പേരും അഞ്ചുപേരോളം ഉണ്ട് അത് ഞങ്ങള്ക്ക് ഒരു ഒരാഴ്ച്ചത്തെ മീറ്റിങ്ങിനായിട്ട് വന്നതാണ് അപ്പോള് നിങ്ങൾക്കത് സാറിനെ ഞങ്ങള് കളിപ്പിക്കത്തൊന്നുമില്ല സാറെ ഇപ്പോഴീ മുന്നൂറു രൂപ പിടിക്ക് ബാക്കി ഞങ്ങള് നാളെ ഞങ്ങള് തരാം അല്ലെങ്കില് വീട്ടിൽ ചെന്നുകഴിഞ്ഞിട്ട് സാറിൻ്റെ നമ്പര് തന്നാല് മതി ഞങ്ങള് ആ നമ്പറിലേക്ക് പണം അയച്ചുതരാം ഇപ്പോള് ഈ മുന്നൂറു രൂപ പിടിക്കൂ സാറെ അത് ഞങ്ങളത് ഓർത്തില്ല സാറേ